രണ്ട് ഏഴ് ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുപ്പത് രണ്ട് ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തിരണ്ട് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്